ഇപ്പം നമ്മൾ പശുവിനെ ഒക്കെ വളർത്തുവാണെന്നരിയിൽ അവയുടെ ചാണകം മൂത്രം ഒക്കെ ഈ അന്യർക്ക് അയൽപക്കം കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കുഴി കുത്തി അത് സുരക്ഷിതമായിട്ട് നാം സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മൃഗങ്ങൾക്ക് വളർത്തുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടെന്നണ് പറയുന്നത് പഴയ കാരണവന്മാരൊക്കെ പറയാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു മേലായ്മ പശുവിനോ മൃഗങ്ങൾക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് മൃഗാശുപത്രി ഉണ്ട് അവിടെ പോയി മൃഗ ഡോക്ടറെ കണ്ട് ചികിത്സകൾ ആരാ തേടാറുണ്ട് പിന്നെ ഇതിനെ പറ്റി വലിയ പുസ്തകങ്ങൾ ഒന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവുകളുണ്ട് കോഴിയൊക്കെ വളർത്തുന്നിടത്ത് നാം കോഴിത്തി അപ്പിക്കകത്ത് ചാരമൊക്കെ ഇട്ട് അതിൻ്റെ മണം പുറത്തു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചാണകത്തിൻ്റെ കാര്യമാണെങ്കിലും മണം പുറത്തുപോയി അന്യർക്ക് ദോഷമായിട്ട് തീരരുത് അതാണ് എൻ്റെ